നമ്മുടെ ഇവിടെ ഉള്ള ഉപഭോക്താക്കൾക്ക് കൂടുതലായിട്ടും നല്ല രീതിയിൽ അതായത് മൃഗ സംരക്ഷണം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് ഇപ്പം പലരീതിയിൽ ഇപ്പം പല മൃഗങ്ങൾ കാര്യങ്ങ ൾ ഒക്കെ ഉണ്ട് ഇപ്പോൾ പട്ടി വളർത്തുന്നവരുണ്ട് പശുവിനെ ആട് കോഴി അങ്ങനെ പല രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ അതായത് നമ്മളൊരു മൃഗത്തെ വാങ്ങി കഴിഞ്ഞാൽ അതിന് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ കുത്തിവെപ്പ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടിവരും എന്നാൽ മാത്രമേ അതിന് എന്താ പറയുക നമുക്ക് ഇപ്പം നമ്മൾ മനുഷ്യന്മാർ എടുക്കുന്ന പോലെ തന്നെ മനുഷ്യന്മാർക്ക് ജനിച്ച ഉടനെ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ ഒക്കെ ചെയ്യും അതായത് ആ ജനിച്ച ഉടനെ ഉള്ള കുത്തിവെപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പോലെ മൃഗത്തിനും അങ്ങനത്തെ പലരീതിയിലുള്ള കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ കൂടുതലായിട്ടും ഇപ്പോൾ ഒരു പശുവിനെ വളർത്തുകയാണെങ്കിൽ അതിന് കൂടുതലായിട്ടും ജൈവ രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ പുല്ലൊക്കെ ജൈവ രീതിയിൽ വെക്കുക നമ്മൾ വലിയ വളങ്ങളും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാണ്ടിരിക്കുക അങ്ങനെ തന്നെ നമുക്ക് എന്താ പറയുക മൃഗങ്ങൾക്ക് പാതി അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ മാറും ഇനിയിപ്പോൾ നമ്മൾ മൃഗത്തെ വളർത്തുമ്പം നമുക്ക് നല്ല രീതിയിലുള്ള തൊഴിൽ മാത്രമാണ് തൊഴിലല്ലാണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു തൊഴിലും കൂടിയാണ് കിട്ടുന്നത് അപ്പം അത് നല്ല രീതിയിൽ നമുക്ക് മികച്ചതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും